എന്റെ ഒരഭിപ്രായത്തിൽ ഇന്ത്യയ്ക്ക് വളരെ വലിയ ഒരു ഹെല്ത്ത് കെയർ സിസ്റ്റം ആണുള്ളത് കാരണം ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പടി മുകളിലാണ് ഇന്ത്യയ്ക്ക് ഒരുപാട് പ്രഗത്ഭരായ നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഉള്ളത് അതുപോലെതന്നെ ഇന്ത്യയിലെ ചികിത്സ ചിലവും വളരെ കുറവാണ് ഇന്ത്യയിലെ മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വേൾഡ് ക്ലാസ് ക്വാളിറ്റിയാണുള്ളത് തുടർച്ചയായി വര്ദ്ധിച്ച് വരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണവും ടെക്നോളജിക്കലി വികസിച്ച് വെരുന്ന മെഡിക്കൽ സഹായവും ഇന്ത്യയെ ആരോഗ്യം അതുപോലെതന്നെ മെഡിക്കൽ ടൂറിസത്തിനും നല്ല ഒരു സ്ഥലമാക്കി മാറ്റി ഇന്ത്യയിലെ ആരോഗ്യ സേവനത്തിന് ചിലവ് വളരെ കുറവാണ് കുറഞ്ഞ ചികിത്സാ ചിലവും ഉയർന്ന നിലവാരവും ഉള്ള ആരോഗ്യ സവ് സേവനം ലോകമെമ്പാടുമുള്ള ആളുകളെ അവരുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് പറക്കാൻ പ്രേരിപ്പിക്കുന്നു മറ്റു രാജ്യങ്ങളിലെ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ആശുപത്രികളും ക്ലിനിക്കുകളും മറ്റെവിടെയെങ്കിലും ചിലവാകുന്നതിന്റെ ഒരു ചെറിയ തുക മാത്രമാണ് ഇവിടെ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഗുണമേന്മയുള്ള ആരോഗ്യ സംരക്ഷണം കൂടുതൽ പ്രാപ്യമാക്കുന്നു ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യസേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് സർക്കാർ വിപുലമായ നിക്ഷേപം നടത്തുന്നു പക്ഷെ ഇന്ത്യയിലെ ഗ്രാമ പ്രദേശങ്ങളെയും അതുപോലെതന്നെ നഗരങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഗുണനിലവാരത്തിൽ നിരവധി വ്യത്യാസം നമ്മൾ കണ്ട് വരുന്നുണ്ട് മിക്ക ഗ്രാമ പ്രദേശങ്ങളിലും ഡോക്ടർമാരുടെ കുറവുകൾ നമ്മൾ കാണുന്നുണ്ട് കോവിഡ് മഹാമാരി വന്നപ്പോൾ നമ്മളുടെ മെഡിക്കൽ ഹെല്ത്ത് കെയർ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് വന്നു പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് അവിടെ പെട്ടെന്ന് നമക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള ഒരു അടിസ്ഥാനസൗകര്യം നമുക്ക് അവിടെ ഇല്ല കോവിഡ് മഹാമാരി വന്നതിന് ശേഷം നമക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയട്ട് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വന്നു നമ്മളുടെ വീടുകളിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല അത് നഗര പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി